നമ്മുടെ രാജ്യത്തെ ആളുകളുടെ സംരക്ഷത്തിന് വേണ്ടിയിട്ട് ആശുപത്രികള് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്പോലെ തന്നെ കേരളത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തില് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് കുറെ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളുമൊക്കെ നമ്മുടെ കേരളത്തിൽ കുറെ ഉണ്ട് പിന്നേ എല്ലാ പഞ്ചായത്തിലും ചെറിയ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടാക്കണം എന്നാണ് കേരളത്തിൻ്റെ ഒര് നിയമമായിട്ടുള്ളത് സൗജന്യമായി നമ്മുടെ കേരളത്തില് കുറെ ഭക്ഷണ സാധനങ്ങളും സുരക്ഷാ മുഖംമൂടികള് സുരക്ഷയ്ക്കായിട്ട് മുഖംമൂടികളെ തൊപ്പി ബേബി സഞ്ചികളൊക്കെ നമുക്ക് കോവിഡ് കാലത്ത് തന്നിട്ടുണ്ടായിരുന്ന് അത്പോലെ തന്നെ പല ആശുപത്രികളായി ഡോക്ടർമാര് സൗജന്യ മായിട്ട് ആളുകളെ ചികിൽസിക്കുന്ന കണ്ടായിരുന്നു പിന്നെ ഇപ്പളും നമ്മുടെ കേരളത്തില് നമുക്ക് അത്തരം രീതിയിലുള്ള സൗജന്യ ചികിത്സകള് കാണാൻ പറ്റും പിന്നെ പല സ്ഥലങ്ങളിലും ഡോക്ടർമാര് നമ്മ് നമു നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആരോഗ്യ ക്രേ കേന്ദ്രങ്ങള് ഉണ്ടാക്കുന്നുണ്ട് പിന്നേ നമുക്ക് ഇപ്പം തന്നെ നോക്കിയാലറിയാം പല തരം സാമൂഹ്യ സേവന സംഘടനകള് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ആശുപത്രികളില് കാണാൻ കഴിയും അവര് നമുക്ക് ആമ്പുലൻസുകളൊക്കെ സൗജന്യമായിട്ട് അവര് ആശുപത്രിയിൽ കൊടുക്കുന്നതൊക്കെ നമക്ക് കാണാനും കഴിയും പിന്നെ കോവിഡ് കാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കോവിഡ് കാലം സുരക്ഷിതമായിരിക്കാന് ഡോക്ടറ്മാരും നേഴ്സ്സ്മാരുമൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്